അതെ അതെ ആരാണ് ഓക്കേ ഡോക്ടറെന്നെയാണ് സംസാരിക്കുന്നത് പറഞ്ഞോളൂ ഓക്കേ നമുക്ക് ആദ്യമായിട്ടറിയേണ്ടത് ആൾക്കെങ്ങനെയാണ് എത്ര വയസ്സുണ്ട് ഷുഗര് പ്രഷര് കൊളസ്ട്രോള് അങ്ങനെന്തെങ്കിലൊക്കെ ഉണ്ടോ അതെയോ ഇപ്പോള് എത്രയായി ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോള് അടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആയിട്ട് ഓക്കേ അപ്പോള് നമുക്കിപ്പൊഴെന്തായാലും ഇത് ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് കിട്ടണം അപ്പോള് അതൊന്ന് ടെസ്റ്റ് ചെയ്യണം ഷുഗര് ടെസ്റ്റ് ചെയ്യണം പ്രഷര് ടെസ്റ്റ് ചെയ്യണം കൊളസ്ട്രോളും ടെസ്റ്റ് ചെയ്യണം അപ്പോള് ഇത് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങള്ക്ക് സൗകര്യമുള്ളതിനനുസരിച്ചിട്ട് വന്നുകഴിഞ്ഞാല് നമുക്കത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റും നിങ്ങളിതിപ്പോ ആ നിങ്ങളെന്ന് കൊണ്ടുവരുന്നോ അതിന്റെ പിറ്റത്തെ ദിവസം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും സാധാരണ നമുക്കിപ്പോള് ഇത് ഇതിന്റെ ചെയ്യുമ്പോള് ഒരു ഇരുപതിനായിരത്തിൻ്റെ അടുത്താണ് വരാറുള്ളത് അപ്പോള് അതിങ്ങനെ കൂടിയും കുറഞ്ഞിട്ടും ഇരിക്കും എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട് എന്നനുസരിച്ചിട്ടൊക്കെ അതിനനുസരിച്ചിരിക്കും എന്തായാലും ഒരു ഇരുപതിനായിരം വരെ മാക്സിമം എന്തായാലും ഉണ്ടായിരിക്കും അതില് താക്കോൽ ദ്വാരം തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ആൾക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നാണെന്നുണ്ടെങ്കില് അധികമൊന്നുമില്ല ഷുഗറും കൊളസ്ട്രോളുമെന്നുണ്ടെങ്കില് നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങളിപ്പോള് ഒരു രണ്ടാഴ്ചത്തോളം നമ്മള് ഇപ്പോള് കുളിക്കയാണെന്നുണ്ടെങ്കില് നമുക്ക് ഒരു രണ്ടു ദിവസത്തിനുള്ളില് കുളിച്ചുതുടങ്ങാം മേല് അത്ര അത്യാവശ്യം ആണെന്നുണ്ടെങ്കില് രണ്ട് ടവല് വെച്ചിട്ടെടുക്കാണെന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല കുളിക്കാനായിട്ട് അതു കഴിഞ്ഞിട്ടിനി ഇപ്പോള് തലയുടെ കാര്യാമാണെന്നുണ്ടെങ്കിലും മാക്സിമം ഒരു മാസം വരെ നിങ്ങള് തല നനയ്ക്കാതിരിക്കായിരിക്കും നല്ലത് കാരണം നമ്മളിപ്പോള് ഇങ്ങനെയാണെന്നുണ്ടെങ്കില് നമ്മളെത്ര കവര് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും കണ്ണിലോട്ടൊക്കെ വെള്ളമായി കഴിഞ്ഞുകഴിഞ്ഞാല് അതാൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോള് അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് നോക്കുക അല്ലാതെ മേലൊക്കെയുള്ളത് നമുക്ക് ടവല് കൊണ്ട് നമുക്ക് തുടച്ചുകൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കില് ആവാം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് പിന്നെയും കുളിപ്പിച്ചുതുടങ്ങുന്നോണ്ടൊന്നും കുഴപ്പമില്ല ആ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്കിപ്പോള് എന്തായാലും കണ്ണട വെച്ചു നടക്കേണ്ടി വരുമല്ലോ അപ്പോള് അത് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ജോലിക്ക് പോകുന്ന ആളായത് കൊണ്ടുതന്നെ പോവാനായിട്ട് പറ്റും കുഴപ്പമൊന്നുമില്ല ഓക്കേ അപ്പോള് എന്തായാലും വരുന്നതിനു തലേദിവസം തന്നെയൊന്ന് ബുക്ക് ചെയ്തോളൂ വിളിച്ചിട്ട്